ഞാനെൻ്റെ സ്ഥാപനത്തിൽ നിന്ന് രാത്രി ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒത്തിരി രാത്രി ആയിക്കഴിഞ്ഞ് സമയം ഇരുട്ടി കഴിഞ്ഞിരുന്നു അപ്പോൾ പബ്ലിക്ക് ട്രാൻസ്പോർട്ട് സർവ്വീസ് നിർത്തി പിന്നെ എനിക്കെൻ്റെ താമസസ്ഥലത്തേക്ക് പോകാനായിട്ട് വേറൊരു മാർഗ്ഗവുമില്ലാതെ വന്നപ്പോൾ ഞാനൊരു ഊബറ് ബുക്ക് ചെയ്തു ആ ഊബറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വളരെ മോശം കണ്ടീഷനായിരുന്നു അതിൻ്റെ അവസ്ഥയെന്ന് പറയാനായിട്ട് അത് കണ്ടാൽ തന്നെ നമുക്ക് അതിനകത്തേക്കൊന്ന് യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് പക്ഷേ എൻ്റെ അന്നേരത്തെ അവസ്ഥ കാരണം ഞാനതിൽ തന്നെ യാത്ര ചെയ്യേണ്ടി വന്നു പക്ഷേ എനിക്കൊട്ടും തൃപ്തികരമല്ലായിരുന്നു ആ ഊബർ സർവ്വീസ് അത് നമ്മൾക്ക് നമ്മൾ പബ്ലിക്ക് ട്രാൻസ്പോർട്ടിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് പേ ചെയ്ത് സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഊബർ ബുക്ക് ചെയ്യുന്നത് പക്ഷേ അതിലെ ആ സീറ്റിങ്ങാണെങ്കിൽ വളരെ മോശം അത് കീറിപ്പറിഞ്ഞൊക്കെ ഇരിക്കുന്നു ഒരു സ്റ്റാൻ്റേർഡായിട്ടുള്ളൊരു വ്യക്തിക്ക് സ്റ്റാൻ്റേർഡെന്നല്ല ഒരു വ്യക്തിക്ക് മാന്യമായിട്ട് യാത്ര പോയി ചെയ്യാൻ പറ്റിയ രീതിയിൽ അതിൻ്റെ സീറ്റിങ്ങ് അറേഞ്ച് ചെയ്ത് നല്ലൊരു വൃത്തിയുള്ള സീറ്റ് വേണമെന്നും അതുപോലെ തന്നെ രാത്രി നമുക്ക് സ്ത്രീകളാണെങ്കിൽ അവർക്ക് സുരക്ഷിതമായിട്ട് അവരുടെ വീടുകളിലെത്തി ചേരാൻ പറ്റിയ ഒരു ഡ്രൈവറെ ആയിരിക്കണം നമുക്ക് കിട്ടുന്നതും ഒരു മോശമായ രീതിയിൽ നോക്കുകയോ പെരുമാറുകയോ ചെയ്യുന്ന ഒരു ഡ്രൈവറുടെ കൂടെയാണ് പോകേണ്ടി വന്നത് അത് ഒരു ഡിസ്കംഫോർട്ടായിരുന്നു എൻ്റെ യാത്രയിൽ എപ്പോഴ് ആപത്ത് പിണയും അല്ലെങ്കിൽ ഇയാൾ എന്നെ വഴി തെറ്റിക്കുമോ എന്നുള്ള ആശങ്കയോടു കൂടിയാണ് ഞാൻ അതിനകത്തിരുന്നത് അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുപോലെ തന്നെ ആ വണ്ടിയാണങ്കിലും ഞാൻ എത്രയും പെട്ടന്ന് വീട്ടിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഒരു ഊബറു ബുക്ക് ചെയ്തത് പക്ഷേ അതിൻ്റെ കണ്ടീഷൻ വളരെ പഴയ വണ്ടിയായത് കൊണ്ടാണോ എന്തോ അത് റോഡിൽ വച്ച് പഞ്ചറായിപ്പോയി അപ്പോൾ ഞാൻ മറ്റൊരു സഹായം ആവശ്യപ്പെടേണ്ടി വന്നു അതുപോലെ തന്നെ അതിൻ്റെ ഹോണോ ഒന്നും തന്നെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലായിരുന്നു അതും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ളപ്പം കംപ്ലയിൻ്റുകളൊക്കെ മാറ്റി നല്ലൊരു വണ്ടിയായിരിക്കണം ഊബർ ഓടാനായിട്ട് വിടേണ്ടത് പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ ആകുമ്പോഴത്തേക്കും ഏറ്റവും സേഫായിട്ടും വൃത്തിയുമായിട്ടുള്ള ഒരു സർവ്വീസാണ് പാസ്സഞ്ചർ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള രീതിയിലുള്ള വണ്ടിയും ഡ്രൈവറും വണ്ടിയുടെ കണ്ടീഷനുമൊക്കെ നല്ലതായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം